ആ പാടുന്ന വികാരവെന്ന് പറഞ്ഞിട്ട് എന്നെ സമ്പന്ധിച്ചിടത്തോളം ഞാൻ വലിയ പാട്ടുകാരിയൊന്നുവല്ല എന്നാലും ജസ്റ്റൊന്നാവശ്യത്തിന് പാടുന്ന ഒരു ആളാണ് ഞാൻ പടുമ്പം ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ പാടുന്ന പടുമ്പം നമ്മളാവൊരു വികാരത്തെ വികാരത്തിലൂടാണല്ലൊ നമ്മൾ പാടുന്നത് ഇപ്പമൊരു സങ്കടപ്പാട്ട് ഒരു ദുഖം ദുഖിതയായിട്ടാണ് ഞാൻ പാടുന്നതെങ്കിൽ

അപ്പം നമ്മുടെ മനസിൽ ആഹ്ളാദവും സന്തോഷവും എ എല്ലാം ആ പാട്ടിലൂടെ നമുക്ക് കാണാൻ പറ്റും ശരിക്കും ഇപ്പൊരു എക്സാമ്പിള് പറയുവാണെങ്കിൽ നമ്മളൊരു സിനിമാറ്റിക് ഡാൻസിടു ഒരു സിനിമാറ്റിക് ഡാൻസിടുമ്പം നമ്മളാവൊരുതിലാണെഞ്ചോയ് ചെയ്യുന്നത് സിനിമാറ്റിക് ഡാൻസടിച്ചുപൊളിച്ചുള്ള നല്ല അടി ഇപ്പോഴത്തെ കാലത്തെ അടിപൊളി പാട്ടുകളാണെങ്കിൽ നമ്മളാതൂലെ ശരിക്കുവെഞ്ചോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് ഡാൻസ്സ് കളിയ്ക്കാൻ തോന്നും നേരെമറിച്ച് അത് ഒരു ഒരു കരയുന്ന പാട്ട് സങ്കടപ്പെട്ട പാട്ടാണ് നമ്മളതിലൂടെ കേൾക്കുന്നതെങ്കിൽ നമ്മളതെങ്ങനായിരിക്കും നമ്മുടെ വികാരം നമ്മളാ സങ്കടപ്പെട്ട് അല്ലെ നമ്മൾ നമ്മുടെ ദുഖങ്ങളോർത്ത് ചിലപ്പം നമുക്ക് ചിലപ്പം കണ്ണീർ വരെ വരുവായിരിക്കാം ആ പാട്ട് കേൾക്കുമ്പം എ എന്നാൽ സ് മറ്റേ കരയാത്തതും അല്ലെങ്കിലെഞ്ചോയ് ചെയ്യാത്തതുമായ സാദാ പാട്ടുകൾ കേൾക്കും ഒരു ചെറുതായിട്ടൊരു സുഖമായിട്ട് കേൾക്കാനായിട്ട് ചിലപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോഴായിരിക്കും നമുക്കൊരു നല്ല പാട്ട് കേൾക്കുമ്പം ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനാണ് പെട്ടന്ന് പറയുമ്പോൾ പാട്ടെന്ന് പാടുന്ന വ്യക്തികളെന്നു പറയുമ്പം അവരാ പാട്ട് ലയിച്ച് പാടുക പാടുവാണല്ലൊ ഇപ്പം നല്ല പാട്ടുകാരെ സം ഇപ്പം കെ എസ് ചിത്ര പറയുന്നത് ഞാൻ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ നന്ദനം എന്ന സിനിമേൽ കൃഷ്ണാ എന്ന് പറയുന്നൊരു ഒരു പാട്ടുണ്ട് കൃഷ്ണാ എന്നും പറഞ്ഞ് വിളിക്കുന്ന ആ ഒരു പാട്ടിൽ കാർമുകിൽ വർണന്റെ ചുണ്ടിൽ എന്ന് ഉള്ള ആ പാട്ടിൽ കൃഷ്ണാന്ന് വിളിക്കുമ്പോൾ ചിത്ര അതായത് കെ എസ് ചിത്ര നമ്മുടെ വാനമ്പാടി കെ എസ് ചിത്ര പറയാറുണ്ട് ഞാനെപ്പോഴും അത് ശരിക്കുമാർമാർത്ഥതയോടെ മനസോടെ വിളിച്ചതാന്നാ പറയുന്നത് ആ കൃഷ്ണാന്ന് അവരൊത്തിരി കരഞ്ഞിട്ടുണ്ടെന്നാണാ പാട്ട് പാടി ഒത്തിരി കരഞ്ഞിട്ടുണ്ടെന്നാണ് അത് കെ എസ് ചിത്ര പറയുന്നത് ഞാനിന്റർവ്യൂലൊ കേട്ടിട്ടുണ്ട് അങ്ങനെ ഏത് പാട്ട്കാർ ഇപ്പം ഞാൻ തന്നെ പാടുന്ന പാട്ട് പ്രതിഭലിക്കുന്നതെങ്ങനെയെന്ന് ഇപ്പം ഞാനൊരു പാട്ട് പാടുമ്പം അല്ലെങ്കിൽ ഞാൻ ഏത് ഇപ്പം ഞാൻ തന്നെന്നല്ല പാട്ട് പാടുന്ന ഓരോരുത്തരും മറ്റുള്ളവർക്ക് പകർന്ന് നൽകുന്നത് അവർക്കാ ഒരു ചി വികാരന്തോന്നണം ഒരു ബുദ്ധിമുട്ടുള്ള പാട്ടാണ് അത് സങ്കടപ്പെട്ട് പാടുന്ന പാട്ടാണെങ്കിലവർക്കാവൊരു സങ്കടം മറ്റുള്ളവർക്ക് തോന്നണം ഒരെഞ്ചോയ് ചെയ്യുന്ന പാട്ടാണെങ്കിലെഞ്ചോയ് ചെയ്യുന്ന പാട്ട് കരഞ്ഞോണ്ട് പാടിയ പ കരഞ്ഞോണ്ട് പാടിയിട്ട് കാര്യമുണ്ടോ എഞ്ചോയ് ചെയ്ത് തന്നെ പാടണം സിനിമാറ്റിക് ഡാൻസ്സ് അടിച്ച് പൊളിച്ച് ഡാൻസ്സ് കളിക്കുമ്പം ഡാൻസ്സ് കളിക്കുന്ന പാട്ടാണേൽ നമുക്ക് ഡാൻസ്സ് കളിയ്ക്കാൻ തോന്നും മറ്റുള്ളവർക്ക് അങ്ങനായിരിക്കണം നമ്മുടെ പ്രവർത്തി നമ്മുടെ ആ ഒരു സൗ സൗണ്ട് വരേണ്ടത് അല്ലെങ്കിൽ ആ ഒരു പാട്ടിന്റെ സുഖം വരേണ്ടത് അങ്ങനാണല്ലോ പാട്ടുകാരെ തെരഞ്ഞെടുക്കുന്നത് നമുക്ക് ഇപ്പം എന്നെ സമ്പന്ധിച്ചിടത്തോളം എനിക്ക് നാന്നായിട്ട് പാട്ടൊന്നുവെനിക്കറിയത്തില്ല അപ്പം അതിനകത്ത് ലാ താളവും അതിന്റെ ശ്രുതിയും അതിന്റെ ആ ഒരു എങ്ങനാണ് പറയണ്ടത് ആ അതിനാണ് നമ്മൾ ജഡ്ജസ്സ്കളക്കെയിരുന്ന് നമ്മൾ പറയുന്ന കേട്ടിട്ടില്ലെ അതിനത് പോരായിരുന്നു ഇത് പോരായിരുന്നൂന്നക്കെ പറയുമ്പം അതിൽ ആ ഒരു എക്സ്പീരിയൻസ്സ് അല്ലെങ്കിലാ ഒരു മാനസികമായിട്ടുള്ള ആ ഒരു ഇത് കിട്ടണം നമുക്ക് ആ പാട്ടിലൂടെ ഏത് പാട്ടാണേലും നല്ല പാ അടിപൊളി പാട്ടാണേലും അല്ലെങ്കിൽ ശ്ലോക ഗാനങ്ങളാണേലും ഏത് പാട്ടാണേലും നമുക്കങ്ങനെ തോന്നണം തോന്നതത്തക്ക വിധത്തിലായിരിക്കണം ആ പാട്ട് നമ്മൾ അവതരിപ്പിക്കേണ്ടത് ഇപ്പം കു നമ്മളിപ്പം എന്നാ പറയണ്ടത് നമ്മൾ സ്കൂളുകളിൽ പാടുന്ന ഈശ്വര പ്രാർത്ഥനയെടുക്കാം ഈശ്വര പ്രാർത്ഥനേടെ ഈശ്വര പ്രാർത്ഥനേടെ താളത്തിലും സുഖത്തിലും വേണം പാടാനായിട്ട് അത് വേറെ പാട്ടായിപ്പോയാൽ നമ്മളെന്ത് ചെയ്യും അത് നമുക്കത് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല അതാണ് ഏത് പാട്ട് പാടുമ്പോഴും മറ്റുള്ളവരെ അംഗീകരിച്ചും അംഗീകരിച്ച് തന്നെയായിരിക്കണം പാടണമെന്നാണ് എന്റെ അഭിപ്രായം